ഇപ്പോൾ നമ്മളെ സ്ത്രീകളുടെ എന്താ പറയുക പ്രശ്നനങ്ങൾ നോക്കുവാണെന്ന് പറയുമ്പോ സത്യം പറഞ്ഞ് കഴിഞ്ഞാൽ ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട് നമ്മള് അത് അവര് സ്ത്രീകള് ഇപ്പോൾ ഒരു ജോലിയെടുത്തു അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു രീതിയില് നമ്മളെ നമ്മുടെ നാട്ടില് അല്ലെങ്കിൽ നാട്ടിൽ മാത്രമല്ല മൊത്തംഇതായിട്ട് പറയാണ് ശമ്പളം തുല്യമല്ല അപ്പ നമ്മള് സ്ത്രീയായാലും പുരുഷനായാലും അവര് എടുക്കുന്ന ജോലിക്കാണ് നമ്മള് ശമ്പളം കൊടുക്കേണ്ടത് അത് അവര് ഇപ്പോൾ അത് ആണായാലും ശെരി പെണ്ണായാലും ശെരി അവരെ നോക്കീട്ട് എന്താ പറയുക അത് പെണ്ണാണ് അതുകൊണ്ട് അവർക്ക് അത്ര ശമ്പളം മതി അത് ഒരു നല്ല രീതിയിൽ ഉള്ള ഒരു സംഭവം അല്ല നമ്മുടെ നാട്ടില് നില നിൽക്കുന്നവര് തന്നെയാണ് ഇപ്പോ ആണുങ്ങൾക്ക് ഒരു ദിവസത്തെ കൂലി എഴുന്നൂറ്റമ്പത് ആണ് പെണ്ണുങ്ങൾക്ക് ആകുമ്പോൾ അഞ്ഞൂറ്റമ്പത് കൊടുത്താ മതി അങ്ങനെയുള്ള ഒരു സ പൊതുവേ ഒരു ഇതാണ് നമ്മുടെ നാട്ടില് നടന്ന് വരുന്നത് പിന്നെ അവർക്ക് ഇപ്പോൾ വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തില് നമ്മൾ പൊതുവേ ഇപ്പോൾ എന്താ പറയാ കൊറച്ചും കൂടെ മുന്നോട്ട് പോയിട്ടുണ്ട് പണ്ട് എന്ന് പറയുമ്പോൾ സ്ത്രീകള് ഇപ്പോ അത്ര പഠിക്കണ്ട എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഒക്കെ ആയിരുന്നു ഇപ്പ അതിൽനിന്നൊക്കെ വിട്ട് ഒരു മാറ്റം വന്നിട്ടുണ്ട് ഇപ്പം നല്ല രീതിക്ക് പഠിപ്പും കാര്യങ്ങളൊക്കെ നമ്മള് കൊടുക്കാനുള്ള ഒരു അവസരം ഇപ്പോൾ അവരുടെ മാതാപിതാക്കള് നൽകുന്നുണ്ട്